നർത്തകര് സമൂഹത്തില് അഭിമുഖീകരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാല് അവരുടെ ആ ഒരു ഇതിന് വേണ്ടി അവര് പോകുന്ന സമയത്ത് അവർക്കൊത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ഓരോ സ്ഥലത്തും അവര് യാത്ര ചെയ്യണം അവർക്കവിടെ പോയി അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ട് പോകണം അവരുടെ കൂടെയുള്ള ആൾക്കാര് വേണം പാടാനുള്ളവര് വേണം അവൻ്റെ ഒരുക്കാനുള്ളവര് വേണം പിന്നെ കൂട്ടത്തിലാരേലും ഒക്കെ പോകേണ്ട വരും അതിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ അവിടെ എല്ലാം പോയി അവര് ചിലപ്പം ഓരോ ഉത്സവങ്ങൾലൊക്കെയായിരിക്കും അവർക്ക് പോയി അത് ചെയ്യുമ്പഴും അത് ചെയ്യണ്ട വരുന്നത് അപ്പോൾ അവിടെയൊക്കെ അവർക്കൊത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വരും ചിലപ്പോൾ അവർക്ക് തുണിയൊക്കെ മാറാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കുറവായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനൊക്കുള്ള സൗകര്യം തപ്പിയൊക്കെ പോകേണ്ടത് വരും അതൊക്കെ ഒത്തിരി മെനക്കെട്ട പണി പണി തന്നെയാണ് ശെരിക്കും പറഞ്ഞാൽ അവരൊത്തിരി ബുദ്ധിമുട്ടുകളനുഭവിക്കുന്നുണ്ട് പിന്നെ അവർക്ക് അവരും അവരുടെ ഒരു ചില നർത്തകരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതായിരിക്കും അവരുടെ ജീവിത മാർഗ്ഗം അതായിരിക്കും അപ്പോൾ അവരത് കഷ്ടപ്പാടുകൾ കൂടെ തന്നെ പോകേണ്ട വരും അവരത് ചെയ്തേ പറ്റുകയുള്ളു അല്ലാത്തവർക്കതിന് ആവശ്യം ഇല്ലാത്തവർക്ക് അതൊക്കെ വേണമെങ്കിൽ ഒക്കെ വേണ്ടാ എന്ന് വെക്കാം പിന്നെ ഈയിടെ ഒരു പ്രശ്നം ഉണ്ടായി ഒരു പുള്ളി കറുത്തതാ കറുത്തത് കറുത്ത ആൾക്കാർക്ക് നർത്ത പാകെ ഡാൻസ് കളിക്കുന്നത് അത് നല്ലതല്ല അത് ചേരത്തില്ല അത് കാണുന്നവർക്ക് അത്ര ആസ്വാദ്യമാകത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞൊരു ബുദ്ധിമുട്ടുകളുണ്ടായി പുള്ളിയെ ആ അതിശയിപ്പിക്കുന്ന രീതീല് പറഞ്ഞു അത് പുള്ളിക്ക് ഭയങ്കര വെഷമം മാനസിക വെഷമുണ്ടായത് കേട്ടവർക്കാണേലും ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു കാര്യം വെച്ച് അങ്ങനെ ആൾക്കാർക്ക് പല പല രീതിയിലാണല്ലോ പലരും ചിന്തിക്കുന്നത് ചിലര് അനുകൂലിക്കുന്നവരുണ്ട് ചിലപ്പം അതിനെതിരായിട്ട് പ്രതി കൂലിക്കുന്നവരൂണ്ട് അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്